ഞാൻ ഓർഡർ ചെയ്തത് ഒരു മൊബൈൽ ഫോണാണ് കൃത്യ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് എക്സ്റ്റേണൽ ഡാമേജൊന്നും കാണാനില്ല ക്യാമറ അടിപൊളിയാണ് ഫോണ് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റോറേജൊക്കെ അത്യാവശ്യണ്ട് കുഴപ്പമില്ല നല്ല പ്രൊഡക്റ്റാണ്